ഹലോ എടാ ഞാൻ എടാ എനിക്ക് കോഴിക്കോടേ നമ്മള ബീച്ചിൻ്റെ സൈഡിൽ എങ്ങാനും നല്ലൊരു ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഒരു പഴയ രീതിയിൽ ഉള്ള ഒരു ഹൗസ് ആണ് അത് അതെ പഴയ ഒരു എന്താണ് പറയുക നമുക്ക് ഒരു നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന പഴയ ടൈപ്പ് ഇല്ലേ ഒരു നടുമുറ്റം അങ്ങനത്ത ടൈപ്പ് ഒക്കെ ആ അപ്പം ആ ഒരു ടൈപ്പ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കോഴിക്കോട് നിനക്ക് നിൻ്റെ അറിവിൽ അത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടെടാ ബാംഗ്ളൂരിൽ നിന്ന് ആ അപ്പം അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒന്നാമത് സിറ്റിയിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് അവർക്ക് ഒന്ന് എന്താണ് പറയുക ചിൽ ആവാനും പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പേര് എഴുത്ത് താൽപ്പര്യം ഉള്ളവരാണ് അപ്പം അവർക്ക് ഒന്ന് എഴുതാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ നല്ല ഒരു എന്തായാലും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ നാളെയാണോ അവർ എന്നാൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും അപ്പം അതിന് മുന്നേ ഒന്ന് സെറ്റ് ആക്കാൻ പറ അവർ ഇപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്

ഫ്രീ ആണ് ഞാൻ നാളെ രാവിലെ ഇപ്പം ഇപ്പം ഞാൻ ഫ്രീ അല്ല കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ എന്താണ് പറയുക വരുള്ളൂ ഒരു നമുക്ക് വൈകുന്നേരം പോയി നോക്കാൻ പറ്റുവോ ഉണ്ട് ആ അതെ അതെ ആ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ ഞാൻ ആ അല്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇപ്പം വരാ എന്നാൽ റേറ്റ് ഒക്കെ എങ്ങനെയാണെടാ വരുക ആ ഇത് റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുക റേറ്റ് ഒരു വിഷയം അല്ല പക്ഷേ എന്താണ് റേറ്റ് എന്നാൽ അവരോട് പറയേണ്ടേ പിന്നെ നിന്റെ ഒരു കമ്മീഷനും കൂടെ നമുക്ക് പറയണമല്ലോ മ് ആ ഓക്കെ അങ്ങനെ ആ എന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പത്തേന് ഞാൻ ഇറങ്ങാം ഞാൻ ഇവിടെനിന്ന് ഇറങ്ങുമ്പം നിന്നെ വിളിക്കാം ഓക്കെ ഓക്കെ ഓക്കെ എടാ മ് മ്